ഹലോ എ വൺ ട്രാവൽസ് അല്ലയോ ഞാൻ വിളിക്കുന്നത് ഇന്ന് ഇന്ന് ഇന്ന് രാവിലെ അഞ്ച് മണിക്കായിട്ട് ഒരു ക്യാബ് നമ്മൾ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് മൂന്നാർ വരെ പോവേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് അപ്പം രാവിലെ അഞ്ച് മണിക്ക് തന്നെ വണ്ടി തരുമെന്നാണ് ഡ്രൈവർ പറഞ്ഞിരുന്നത് ഇപ്പം അഞ്ച് മണി മുതൽ ഞങ്ങൾ ഡ്രൈവറെ കാണാതെ പുള്ളിയുടെ നമ്പറിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി ഒരു റെസ്പോൺസും തരുന്നില്ല ഫോൺ എടുക്കുന്നില്ല ഈ സാഹചര്യത്തിൽ അതായതുകൊണ്ടാണ് നമ്മൾ ട്രാവല്സിലേക്ക് പിന്നെ നേരിട്ട് വിളിക്കേണ്ടുന്ന സാഹചര്യം വന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ ഒരു ക്യാബ് അറേഞ്ച് ചെയ്ത് തരുക തരണം നമ്മുടെ യാത്ര മുടക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ക്യാബ് അറേഞ്ച് ചെയ്ത് തരണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വണ്ടി വിളിച്ച് പോകാനാണെങ്കിൽ ആ എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള അഭിപ്രായം ഒന്ന് പറയണം നമ്മൾ ഒരു അത്യാവശ്യത്തിന് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടുന്നത് നമുക്ക് ജോലിയോട് ഒരു നീതിയൊക്കെ കാണിക്കേണ്ടേ സമയത്ത് വിളിക്കുക അല്ലെങ്കിൽ വരാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയണം അല്ലെങ്കിൽ ഏജൻസിയിലൊന്ന് ബന്ധപ്പെട്ട് പറയണം ഇന്ന ഇത് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് ഇന്ന കാര്യം ഇന്ന ഇപ്പം സാധ്യമല്ല എന്നൊക്കെ ഉള്ളത് പറയണം എന്ന് ഇതുവരെ അങ്ങനെ ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ ഒരു ക്യാബ് എത്തിച്ച് തരിക അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം നമ്മളോട് അറിയിക്കുക